ഹലോ സല്മായ ആ പിന്നെയില്ലേടി ഞാനൊരു കാര്യം ചോദിക്കാന് വേണ്ടി വിളിക്കുകയാണെ പിന്നേ നമ്മുടെ കണ്ണൂര് എവിടെയാണ് ഒരു നല്ലൊരു ടെക്സ്റ്റയില് ഷോപ്പ് പറഞ്ഞു തരുമോ സെഞ്ച്വറിയോ ഓ അതെയോ നീ പോയിട്ടുണ്ടോ അവിടെ ആ ഓ അതെയോ ആണോ ആ ആ വേറെ എതെങ്കിലും ഉണ്ടോ എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുക്കാന് വേണ്ടിറ്റേനു ലുലു ൽ എങ്ങനെ നല്ലത് തന്ന്യ പക്ഷേ അവിടെ റേറ്റ് അധികമല്ലേ

സെഞ്ച്വറി ഇപ്പം പഴയ സ്ഥലത്തിന്നു മാറി അല്ലേ പുതിയതിൽ ആദ്യം മാര്ക്കറ്റ് റോഡ് ആ ആ ശരി ശരി മനസ്സിലായി ഇതോ ഗോള്ഡിന്റെ ഷോപ്പ് ഉണ്ടോ അറിയുന്നത് എതെങ്കിലും കുഞ്ഞിക്കണ്ണന് വേണ്ടാ കു ഓ അതെയോ ഓ അതെയോ

അ അല്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കി തരുന്ന എതെങ്കിലും ഷോപ്പ് അറിയുമോ കണ്ണൂർ തന്നെ നമ്മൾ മോഡൽ പറഞ്ഞിട്ട് ആക്കുന്നത് ആ ആ ആ എന്നാ നോക്കട്ടെ ഞാന് എന്നാൽ വിളിക്കാം ആ ശരി